കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്ത ജില്ലയായ പാലക്കാടായ എൻ്റെ നാട്ടിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റോഡ് ഗതാഗതമാണ് അതുകൊണ്ട്തന്നെ ഞങ്ങൾ റോഡ് ഗതാഗതമാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ആലപ്പുഴ കൊല്ലം എന്നി ജില്ലകളിൽ ജല ഗതാഗതം എങ്ങനെയാണോ അത്തരത്തിലുള്ള ഒരു രീതിയിൽ തന്നെയാണ് പാലക്കാടില് റോഡ് ഗതാഗതം ഞങ്ങൾ ഉപയോഗിക്കുന്നത് പാലക്കാട് എന്ന് പറയുന്ന രണ്ടാമത്തെ വലിയ ജില്ലയിൽ എയർപോർട്ട് എന്ന സംവിധാനം ഇല്ലെങ്കിലും അതുപോലെത്തന്നെ പാലക്കാടില് പല മേഖലകളിലും റെയിൽവേ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലും റോഡ് ഗതാഗതം ഞങ്ങളെ വളരെ അധികം സഹായിക്കുന്നുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ഉൾനാടുകളിലും അതുപോലെത്തന്നെ ഉൾ പ്രദേശങ്ങളിൽ വരെ ഇന്ന് റോഡുകൾ എത്തിപ്പെടുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾക്ക് എത്ര പെട്ടന്ന് വേണമെങ്കിലും എത്തിപ്പെടാനും ഏത് സമയത്ത് വേണമെങ്കിലും എത്തിപ്പെടാനും പറ്റുന്ന ഒരു ഗുണ നിലവാരം കൂടിയ ഒരു സംവിധാനമാണ് ഇവിടുത്തെ റോഡ് ഗതാഗതം എന്ന് പറയുന്നത് അതുപോലെത്തന്നെ പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ഗതാഗതം മാർഗ്ഗങ്ങൾ വളരെ കൂടുതലാണ് ഓട്ടോ ആണേലും ബസ് ആണേലും ഇരു ചക്ര വാഹനം ആണേലും ഇന്ന് നിരത്തുകളിൽ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് പോലുള്ള ഒരു ജില്ലയിൽ റോഡ് ഗതാഗതം വളരെ ഉപകാര പ്രദമായിട്ടുള്ള ഒന്നാണ് ഇന്ന് എല്ലാ വീടുകളിലും ഓട്ടോ കാർ ബൈക്ക് എന്നി വാഹങ്ങൾ ഉള്ള ഉള്ളതുകൊണ്ടുതന്നെ നമ്മുടെ ഈ പ്രദേശം അല്ലെങ്കിൽ ഈ പാലക്കാട് പോലുള്ള ഒരു പ്രദേശത്ത് റോഡ് ഗതാഗതം വളരെ അധികം ഗുണം ചെയ്യുന്നുണ്ട് പല മേഖലകളിലും ഉൾനാടൻ പ്രദേശങ്ങളിൽ വരെ റോഡ് എത്തിപ്പെടുന്നത് കൊണ്ടുതന്നെ ആൾക്കാര് ഈ നാട്ടിലുള്ള ആൾക്കാർ കൂടുതലയിട്ട് ഉപയോഗിക്കുന്നത് റോഡ് ഗതാഗതം തന്നെയാണ്